നമ്മളിപ്പം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ നമുക്ക് വിദ്യാഭ്യാസം കൂടുതൽ ഉള്ളത് വളരെ വലിയ കാര്യമാണെന്നാണ് എല്ലാവരുടേയും വിചാരം പക്ഷേ വിദ്യാഭ്യാസം ഉള്ളത് നല്ലതാണ് പല പല കാര്യങ്ങൾക്ക് നമ്മൾ ചെല്ലുമ്പോൾ വലിയ വിദ്യാഭ്യാസമുള്ളവനാണ് എൻ്റെ കാര്യം സാധിച്ച് കിട്ടുമല്ലോ എന്നോർത്തായിരിക്കും നമ്മളൊരു ഓഫീസിലോട്ടാണെങ്കിലും ചെല്ലുന്നത് ചെന്നു കയറിച്ചെന്ന് കഴിയുമ്പോഴാണ് അവൻ്റെ കുംബാസും പവറൊക്കെ കണ്ട് കഴിയമ്പോഴത്തേക്കും അവൻ ഈ ഞാനാരാണെന്നുള്ള മട്ടിലാണ് പക്ഷേ നമ്മൾ ചെന്ന് നിൽക്കുന്നവൻ അവനെക്കാളും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവനായിരിക്കും നമ്മളിപ്പം വിദ്യാഭ്യാസത്തിലല്ല കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും തീരുമാനിക്കണ്ട നമ്മൾക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയെന്നുള്ളൊരു ഇപ്പം ഒരു ഓഫീസിലെ പല പല കാര്യങ്ങൾക്ക് ഞാനും പോകുന്നുണ്ട് ചെന്നു കഴിഞ്ഞാൽ അവർ അവിടെ ഇരുന്നുകൊണ്ട് അവർ അങ്ങോട്ടും നോക്കി വർത്തമാനം പറഞ്ഞ് ഇങ്ങോട്ടു നോക്കി വർത്തമാനം പറഞ്ഞ് നമ്മൾ പോയി നിൽക്കുന്നവന് ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടോ അല്ലേ അവൻ അതുപോലൊന്നൊരു കാര്യം സാധിച്ച് കിട്ടണമെന്നുള്ള ഒരു യാതൊരു ചിന്തയും അവനില്ല അവൻ്റെ സൗകര്യത്തിന് അതും ഒന്നും എന്താ എന്നുള്ളൊരു മട്ടിലുള്ളൊരു ചോദ്യമായിട്ട് അവിടെ ഇരിക്കും വിദ്യാഭ്യാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് പല പല കാര്യങ്ങൾക്കും നമുക്ക് വിദ്യാഭ്യാസം നല്ലതാണ് പറയാമെന്നുള്ളതല്ലാതെ ചില ചില കാര്യങ്ങൾ അഹങ്കാരം മറ്റു കാര്യങ്ങളൊക്കെ വച്ച് നോക്കുമ്പം വിദ്യാഭ്യാസം എന്നു പറയുന്നത് വളരെ മോശമായ കാര്യമാണ് പിന്നെ നമുക്ക് ഒരു പ്രധാനമായിട്ടും നമുക്ക് ഒരു ഒപ്പ് ഇടേണ്ട എഴുത്ത് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസം നല്ല ചില മനുഷ്യർ എന്നു പറഞ്ഞതുകൊണ്ട് ആ നല്ല മനുഷ്യർ ആ അവർക്ക് ഇച്ചിരി വിദ്യാഭ്യാസം കുറഞ്ഞെന്നു പറഞ്ഞാലും ഇച്ചിരി കൂടിയെന്നു പറഞ്ഞാലും അവർ മറ്റുള്ളവരോട് നല്ല ദയ കാണിക്കുകയും നല്ല സ്നേഹം കാണിച്ച് എന്തു കാര്യത്തിനാണ് വന്നത് എന്താണെന്നു വച്ചാൽ അവരെക്കൊണ്ട് കഴിയാവുന്നതിൽ അതിലപ്പുറം അവർ നല്ല രീതി ചെയ്തു തരുന്ന ആൾക്കാരുമുണ്ട് ചില ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളു അങ്ങനത്തെ ഒരു ഇത് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളു